ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ കുറേ ആചാരങ്ങളും ഇതൊക്കെയുണ്ട് അപ്പോൾ സംസ്കാരത്തിലായാലും ഇതിലൊക്കെ ആയാലും കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴും കൈമാറി കൈ വരുന്നതായിട്ടുണ്ട് അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ മുസ്ലീംസിൻ്റെയൊക്കെ ഓരോ ആചാരങ്ങൾ ഇപ്പോഴും കൈമാറി കൈമാറി വരുന്നുണ്ട് പിന്നെ കരകൗശലവസ്തുക്കൾ കല അങ്ങനെയുള്ളതൊക്കെയാണെങ്കിൽ പറയാനുള്ളതാണെങ്കിൽ കൂടുതലും കോഴിക്കോട് ബീച്ച് മീൻ പിടിക്കാൻ പോണ മുക്കുവന്മാരെ പോലുള്ളവർ കൈമാറി കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവർ ഇപ്പോൾ കൈമാറിവരുന്നത് എങ്ങനെയാണെന്നു വെച്ചാൽ മീൻപിടിക്കുന്ന രീതികൾ അതായത് കല അവരുടെ കലയാണ് മീൻ പിടിക്കുന്നതെങ്ങനെയാണ് അതിനു യൂസ് ചെയ്യുന്ന വല അതെങ്ങനെ തുന്നിയെടുക്കാം അങ്ങനെയുള്ള കലാ കരകൗശലവസ്തുക്കൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവരിലേക്കും പകർന്നു കൊടുക്കുകയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പം അതു തന്നെയാണ് മെയിനായിട്ട് കോഴിക്കോട് ജില്ലേൻ്റെയൊരു പ്രത്യേകത അവരുടെ കലയായാലും ഇപ്പം എന്താ പറയുക ഒരു മത്സ്യത്തിനെ പിടിക്കാനൊക്കെ പോകുമ്പോൾ ഒരു ഈണത്തിൽ പാട്ടൊക്കെ പാടി അങ്ങനെക്കെയാണ് പോകാറ് അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ വരുന്ന എല്ലാവരും തന്നെ മുൻപോട്ടു പോകുന്നത് അപ്പം അങ്ങനെ കര കരകൗശലവസ്തു കര വശ് ഇതൊക്കെ എല്ലാ സാധനങ്ങളും മറ്റുള്ളവരിലേക്കവർ പകർന്ന് കൊടുക്കുന്നുണ്ട്